സ്ത്രീധനം കൊടുക്കുന്നതിൽ താൽപ്പര്യമില്ല സ്ത്രീധനമായിട്ട് സ്ത്രീതന്നെ സ്ത്രീ തന്നെയാണ് ധനം അല്ലാതെ ആ അവർക്ക് കഴിഞ്ഞു കൂടാനായിട്ടുള്ള എന്തുവാണ് സാമ്പത്തികം കൊടുക്കുക പിന്നെ ആളുകൾ വസ്ത്രങ്ങൾ വധുവിന് കൊടുക്കാറുണ്ട് ആഭരണങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ പലവിധത്തിലുള്ള സമ്മാനങ്ങളാൽ വധുവിന് കൊടുത്ത് സന്തോഷിപ്പിക്കാറുണ്ട് സ്ത്രീധനമായിട്ട് കൊടുക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ പുതിയൊരു കുടുംബം ആകുമ്പോൾ അവർക്ക് ഈ ലോകത്ത് നിലനിന്നുപോകാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും കൊടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത്